അതായത് നമ്മള് കമ്പോസ്റ്റ് വളം അതായത് മാറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പം ഇറച്ചി കഴുകിയ വെള്ളം മീൻ കഴുകിയ വെള്ളം അതിൻ്റെ വേസ്റ്റുകള് പിന്നെ പച്ചക്കറിൻ്റെ വേസ്റ്റുകള് പിന്നെയിപ്പം പശു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പശുവോ കോഴിയോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കില് അതിൻ്റെ പിന്നെ പശുവിന്റെ ആണെങ്കിൽ ചാണകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് കമ്പോസ്റ്റിലിടും അതല്ല ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മള് അതായത് ഗ്യാസാക്കി മാറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ വീട്ടില് അതായത് നമ്മുടെ മറ്റേ പാചക പാചക പാചക വാതക ഗ്യാസുപോലെത്തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പൈസ പോലും ചിലവാക്കാണ്ട് നമ്മുടെ വേസ്റ്റാണെങ്കിലത് പിന്നെ റീസൈക്കിൾ ആയിട്ടത് ഗ്യാസായിട്ട് പോകും ചെയ്യും പിന്നെ അത് നമുക്കൊരു ഉപകാരവും ആയിരിക്കും അപ്പോൾ അതൊക്കെ നല്ലൊരു ഇതന്നെയാന്നാണ് എൻ്റെ ഒരഭിപ്രായം കാരണംന്നു വെച്ചുകിട്ടുണ്ടെങ്കില് നമ്മുക്ക് അതായത് വീട്ടിലെ അതായത് ഗ്യാസിനു വലിയ ചിലവുണ്ടാകില്ല പിന്നെ നമ്മുടെ വേസ്റ്റെല്ലാം പോകും ചെയ്യും അപ്പോൾ അതൊരു നല്ലൊരു ഗുണം തന്നെയാണ്